ഞങ്ങൾ ഇവിടെ ഉള്ള കടയെന്നു വച്ചാൽ ഗ്രാമത്തിലുള്ള കടയെന്നു വച്ചാൽ പലചരക്ക് കട എന്ന് വച്ചു കഴിഞ്ഞാൽ മൂന്ന് കടയാണ് ഉള്ളത് അതിലെ മൂന്ന് കടയിൽ ഒരു കടയിൽ എല്ലാ മിക്ക സാധനങ്ങളും കിട്ടും സൂപ്പർ മാർക്കറ്റിൽ ഉള്ളപോലത്തെ സാധനങ്ങളൊക്കെ മിക്ക സാധനങ്ങളും കിട്ടും അവിടെ മാത്രം കുറച്ച് റേറ്റ് കൂടുതലാണ് സാധനങ്ങൾക്ക് അവിടെ ഞങ്ങൾ വില പേശാറും ഉണ്ട് അതുപോലെതന്നെ നമ്മുടെ ഈ കടം പറയുക എന്നു വച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കും കടം എടുക്കുക ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എടുക്കും അങ്ങനെ മാസം ഒന്നിച്ച് പൈസ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ അതുപോലെതന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ അതേപോലെ ഇവിടെ കുറച്ചുംകൂടി മികച്ച വലിയ കട വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ പിന്നെ കടവും പറയും അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ വില പേശാറൊക്കെയുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രൂപയെന്നൊക്കെ പറയുമ്പോൾ കുറച്ചു കുറയ്ക്കുകയൊക്കെ വില പേശാറൊക്കെയുണ്ട് അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഞമ്മൾ നടക്കുന്നത് ഇവിടെ കുറച്ചുംകൂടി നല്ല കടകൾ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും